നമ്മളിപ്പം നോക്കി കഴിഞ്ഞാൽ ഇൻറ്റർനെറ്റിൻ്റെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഈ വളർച്ച മൂലം നമ്മളുടെ മലയാളത്തിലെ മലയാള ഭാഷയുടെ ഉപയോഗം തന്നെ വളരെ ചുരുക്കമായിരിക്കും കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ എല്ലാവരും നമ്മളുടെ മലയാള ഭാഷ കൂടുതൽ ഉച്ഛരിക്കും കൂടുതൽ വർത്തമാനം പറയും എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പം നിസ്സാരം ഫോണിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഇംഗ്ലീഷ് സ്ലാങ് മാത്രമേ ഇംഗ്ലീഷ് മലയാളം അതായത് മംഗ്ലീഷെന്നൊരു സ്ലാങ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരു മലയാളത്തിലല്ല തനി മലയാളി ഒരു തനിമയിൽ നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്യാറില്ല ഒരാൾ കറക്റ്റായിട്ട് സംസാരിക്കാറു പോലുമില്ല ഇപ്പം ഞാൻ തന്നെ സംസാരിച്ചാൽ ചില സമയത്ത് ഇംഗ്ലീഷ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് കയറി വരും കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സാങ്കേതിക വളർച്ചയിൽ നമ്മുടെ ആ ആ ഇൻറ്റർനെറ്റിൻറ്റെയൊക്കെ വളർച്ച കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു മനുഷ്യന് അയാളുടെ മാതൃഭാഷയിൽ നിന്ന് പറിച്ച് മാറ്റുക പറിച്ച് പതിയെ അയാളെ ആ വേരിൽ ആ വേര് പതിയെ അയാളുടെ ഈ മാതൃഭാഷ ആയിട്ടുള്ള വേര് പതിയെ കട്ട് ചെയ്ത് എടുക്കുക അത് അതൊക്കെ തന്നെയാണ് ഇൻറ്റർനെറ്റിൻ്റെ വളർച്ച കൊണ്ട് നമുക്ക് തന്നെയാണ് കൂടുതൽ ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു വളരെ നമുക്ക് ഒരു ദൂഷ്യം തന്നെയാണ് കാരണം ഒരു കാര്യം നമ്മളോട് ഒരു മലയാളത്തിൽ എന്തെങ്കിലും ഒരു സെൻറ്റെൻസ് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പം നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇപ്പം കണ്ട് വരുന്നത് അത് വളരെ ഒരു ദൂഷ്യമായിട്ടുള്ളൊരു ഇതാണ് ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നത്